കഴിഞ്ഞ വെക്കേഷൻ്റെ ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് വന്നിരുന്നു അപ്പം വരുന്നതിന് മുൻപ് തന്നെ എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു നിനക്ക് എന്താണ് അത്യാവിശ്യമായിട്ട് വേണ്ടത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വല്ലതും വേണ്ടതുണ്ടോ എന്ന് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഡിയോഡ്രൻ്റ് കൊണ്ടു വരാനാണ് എനിക്ക് നല്ല വിയർപ്പ് നാറ്റം ഉള്ള ഒരു ആളാണ് അപ്പോൾ എല്ലാവരും പറയും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഡിയോഡ്രൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ നീ പുറത്തേക്ക് ഇറങ്ങല്ലേ നല്ല സ്മെല്ലാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കഴിഞ്ഞിരികുകയാണ് ഒന്നു കൊണ്ടു വന്നോ എന്നു പറഞ്ഞു ജാസ്മിൻ്റെ ഫ്ളേവറിലുള്ളത് പറഞ്ഞു അതുകൊണ്ട് വന്ന് കൊണ്ടു വരികയും ചെയ്തു പക്ഷെ എന്താണെന്നു വച്ച് കഴിഞ്ഞാൽ സ്മെല്ല് അധികനേരം ലോങ്ങ് ലാസ്റ്റ് അല്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ല് പോവുകയാ ണ് നമ്മൾ സ്പ്രേ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ല് പോവുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അണ്ടർ ആർമ്സിൽ ഇങ്ങനെ കളറ് വരുകയാണ് ബ്ലാക്ക് കളറ് വരികയാണ് മൊത്തത്തിൽ ഒരു ഇറിറ്റേറ്റിങ് ആയിട്ട് തോന്നാ അങ്ങനൊരു ചൊറിച്ചിലോ അങ്ങനെ എന്തോ അപ്പോൾ എനിക്ക് ഇത് ഒട്ടും ഇഷ്ട്ടമായിട്ടില്ല നിങ്ങളും ഇങ്ങനത്തേത് വാങ്ങിക്കരുത് എന്നാണ് എൻ്റെ ഒരു ഒരു എസ്പീരിയൻസ് അല്ലെങ്കിൽ പറയാനുള്ളത്